ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ആണ് വാഷിംഗ് മെഷീൻ നല്ലൊരു പ്രൊഡക്ട് ആണ് കാരണം എന്താ വച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ അങ്ങനെ ഇല്ല നമ്മളെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് അമ്മയാണ് എപ്പോഴും അലക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അലക്കാൻ നമുക്കിപ്പോൾ കൈ യൂസ് ചെയ്യേണ്ട നിന്നു കുറെ നേരം നിൽക്കണ്ട അങ്ങനത്തെ ഒരു ഇതിന് ഒന്നും വേണ്ട നമ്മൾ അതിനകത്തേക്ക് തുണി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് സ്വന്തം അലക്കിക്കോളും അതിന്റെ മോട്ടറ് കറങ്ങിയിട്ട് ചളി അത്യാവശ്യം രീതിയിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ളൊരു പ്രൊഡക്ട് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾക്കിപ്പോൾ അതിനകത്തേക്ക് എന്ത് ചെയ്യാം സോപ്പ് പൊടി അങ്ങ് ഇട്ടു കൊടുത്താൽ മതി ബാക്കി അതെല്ലാം ചെയ്തോളും അപ്പം നല്ലൊരു പ്രൊഡക്ട് ആണ് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ പിന്നെ കറണ്ടിലങ്ങ് കുത്തിയാൽ മതി നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണ്ട കാര്യമില്ല അതിന് ഒരു ടൈമർ ഉണ്ട് ആ ടൈമറ് നമ്മൾ ഇങ്ങനെ തിരിച്ചു വച്ചു കഴിഞ്ഞാൽ ടൈമറ് അത് കറങ്ങി തീരുന്ന അവിടെ എത്തുന്നത് വരെ നമ്മൾ ഒന്നും നോക്കണ്ട അത് താനേ ഓഫ് ആവുകയും ചെയ്യും നമ്മൾ ബാക്കി എന്ത് ചെയ്യുക വെള്ളം കളഞ്ഞ് ഒന്നും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വെള്ളം ഒഴിക്കുക അതിനകത്തേക്ക് ഒന്നും കൂടി സോപ്പ് പൊടി ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യുക പിന്നെ നമുക്ക് ഡ്രയിൻ ചെയ്യാം നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം ഉണക്കുന്നതിന് മുന്നെ ആ വെള്ളം ഒക്കെ പിഴിഞ്ഞ് കളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് ഭയങ്കര പാടാണ് പിഴിഞ്ഞ് കളയുമ്പോൾ നമ്മളെ കയ്യൊക്കെ വേദന എടുക്കും പക്ഷേ ഇതിൽ അങ്ങനെ അല്ല ഇതിനാണ് അത് കറക്കുന്നതിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡ്രയിൻ ചെയ്തിട്ട് വെള്ളം എല്ലാം കളഞ്ഞ് അതായത് ഏകദേശം ഒരു പകുതിയും മുക്കാലും ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ നമ്മുടെ വെള്ളം എല്ലാം കളഞ്ഞ് പകുതിയും ആ ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ഉണങ്ങി കിട്ടും പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് കൊണ്ട് ഇട്ടാൽ മതി അധികം വെയിൽ ഇല്ലെങ്കിലും പെട്ടന്ന് ഉണങ്ങി കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ആണ്